മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ മറ്റൊരു ലാംഗ്വേജ് ഉള്ള മറ്റൊരു സംസ്ഥാനക്കാർക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനക്കാർ പറയുന്നത് കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പാടാണ് മലയാള ഭാഷ പഠിക്കുന്നതിലും അതിൻ്റെ ലിപികളായാലും ശരി സംസാരിക്കുന്നതിനായാലും ശരി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് മലയാള ഭാഷയാണെന്നാണ് എല്ലാവരും മറ്റ് അന്യസംസ്ഥാനക്കാർ പറയുന്നതെങ്കിൽ പോലും നമുക്ക് അതിന് ഒത്തിരി ഉപാധികളുണ്ട് നമുക്ക് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഒത്തിരി അന്യസംസ്ഥാനക്കാർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഉപാധികളുണ്ട് കൂടുതലും നമ്മൾ മലയാളം സംസാരിക്കുന്നവരുമായിട്ട് മലയാളികളുമായിട്ട് ഇടപഴകുക അന്യ സംസ്ഥാനക്കാരും മലയാളികളായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് മലയാളം സംസാരിക്കാൻ പഠിക്കാൻ പറ്റുന്നതാണ് അതുപോലെ കുറച്ച് മലയാളം പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വായിക്കുവാനും എഴുതുവാനും എല്ലാം കഴിയും മലയാള ഭാഷ യഥാർത്ഥത്തിൽ വന്നത് തമിഴിൽ നിന്നാണ് എന്നാണ് പറയുന്നത് തമിഴ് വന്നത് ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് എന്നൊരു അറിവുണ്ട് ഈ ദ്രാവിഡ ഭാഷയിൽ നിന്ന് വന്ന തമിഴ് തമിഴിൽ ഉണ്ടായതാണ് മലയാളം എന്നാണ് പരക്കെ പറയുന്നത് അത് ശരിക്കും ശരി തന്നെയാണ് എന്നാണ് എൻ്റെയും ഒരു ഒരു അറിവ് അതാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ പോലും പറഞ്ഞിരിക്കുന്നത് മലയാളം എന്നൊരു നല്ല ഭാഷയാണെന്നാണ് അതിലൊരു തെറ്റിദ്ധാരണയായിട്ട് സംസാരിക്കാനൊന്നും നമുക്ക് അവകാശമില്ല കാരണം മലയാള ഭാഷ ഒരു നല്ല ഭാഷ എന്നാണ് അതിന് വേറെ വാഖ്യാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതിനുള്ള തെറ്റിദ്ധാരണകൾ എന്ന് വെച്ചാൽ അന്യ സംസ്ഥാനക്കാരാണ് അതിൽ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് വരുന്നത് മലയാളികളെ അപേക്ഷിച്ച് മലയാളം ഒരു നല്ല ഭാഷ തന്നെയാണ് മലയാളികൾ അന്യസംസ്ഥാനത്ത് കുടിയെറിപ്പാർത്താലും അവർക്ക് മലയാളത്തിനോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് മലയാളത്തിനോട് തെറ്റിദ്ധാരണ എന്ന് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല മലയാളം നല്ലൊരു ഭാഷ തന്നെയാണ് അതിൽ ഈ തെറ്റിയിരിക്കേണ്ടതായിട്ടൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ തമിഴ് നാട്ടുകാരെയും തമിഴ് ഭാഷകളെയും കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും പറയുന്നുണ്ടാകുമല്ലോ അതെല്ലാം നല്ലൊരു ഭാഷ തമിഴ് ഭാഷ എന്ന് പറയുന്നത് തമിഴ് ഭാഷയിൽ നിന്നാണ് നമുക്ക് കേരളം മലയാള ഭാഷ ഉണ്ടായിരിക്കുന്നത് ഇതൊരിക്കലും നമ്മൾ തമിഴ് ഭാഷയെ കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് മലയാള ഭാഷയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയായിട്ടാണ് മലയാളത്തെ കണക്കാക്കുന്നത് അത് സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് പാടുകളൊന്നുമില്ല ഇപ്പം നമുക്ക് ഒത്തിരി മോഡേൺ യുഗത്തിൽ നമുക്ക് അത് പഠിക്കുവാൻ ഇൻറർനെറ്റ ഉപയോഗിക്കാൻ പറ്റും ഗൂഗിളിൽ കൂടെ പഠിക്കാൻ പറ്റും നമുക്ക് ട്രാസ്ലേറ്റ് ചെയ്ത് മലയാള മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു തെറ്റ് കാരണം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇപ്പം ഗൂഗിൾ ഉണ്ട് ഇൻറ്റർനെറ്റ് ഉണ്ട് വിക്കിപീഡിയ ഉണ്ട് അങ്ങനെ ഇപ്പം ഒത്തിരി മൂടയൻ ഇത് ഉള്ളത് കൊണ്ട് മലയാള ഭാഷ പഠിക്കുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അർത്ഥത്തിൽ ഇതൊരു തെറ്റായ ധാരണ തന്നാണ് മലയാള ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഈ ഒരു യുഗത്തിൽ മലയാള ഭാഷ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കേ